ആ എൻ്റെ അമ്മ ബികോം വരെ പഠിച്ച ആളാണ് എൻ്റെ അമ്മയുടെ അമ്മയ്ക്കും നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു ആ കാലത്ത് പോസ്റ്റ് ഓഫീസിലൊക്കെ ജോലി ഉണ്ടായിരുന്ന ആളാണ് എൻ്റെ അമ്മയുടെ അമ്മ എന്നു പറയുന്നത് ആ അപ്പോൾ അമ്മയുടെ അമ്മക്ക് ആ ഒരു വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ആ ഒരു ബോധം ഉണ്ടായിരുന്നതു കൊണ്ടു തന്നെ എൻ്റെ അമ്മേനെയും പഠിപ്പിക്കണം എന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു വല്യമ്മക്ക് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ പക്ഷെ ചെറുപ്പത്തിൽ അവർക്ക് വിദ്യാഭ്യാസത്തിന് പോകണമെന്ന് ഉണ്ടെങ്കിലും സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു പണ്ടൊക്കെ ഉള്ളവർ പറയുംപോലെ ഈ പറയുംപോലെ കാടും മലയും ഒക്കെ താണ്ടി വേണമായിരുന്നു പോകാൻ പക്ഷെ ആ അപ്പോൾ ഈ ചുരുക്കം ചില ആൾക്കാരായിരിക്കും ഓരോ ക്ലസ്സുകളിൽ നിന്ന് ജയിക്കുക അപ്പം ആ ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് ജയിക്കുന്നവർ എന്നു പറയുന്നത് വലിയ കാര്യമാണ് ഇപ്പോഴെന്നു വെച്ചു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു എട്ടോ ഒൻപതോ ക്ലാസ് വരെയൊക്കെ വെറുതെ അങ്ങ് ജയിപ്പിച്ച് വിടുന്ന ഒരു സിസ്റ്റം വന്നിട്ടുണ്ട് പക്ഷെ പണ്ടങ്ങനെയല്ല കഷ്ടപ്പെട്ട് പഠിച്ച ഓരോ മാർക്കും ലഭിക്കുന്നതിനനുസരിച്ച് നമ്മൾ ജയിക്കത്തുള്ളൂ അതിന് അനുസരിച്ചേ ഓരോ ക്ലാസുകളിലേക്കും നമ്മൾ പോകാൻ പറ്റുകയുള്ളൂ അതു കൊണ്ടു തന്നെ അങ്ങനെയൊക്കെ ജയിക്കുന്നവരൊക്കെ അവർക്ക് വലിയ ആ അവരുടെ ആ വിദ്യാഭ്യാസം കൊണ്ട് അവരൊക്കെ നല്ല നിലയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നു തന്നെ പറയാം ഇപ്പോഴെന്നു വെച്ചാൽ അങ്ങനെയൊരു വിദ്യാഭ്യാസം ഇല്ലായ്മയൊന്നും എല്ലാവരെയും പഠിക്കാൻ വിടുന്നുണ്ട് വിദ്യാഭ്യസം ഇല്ലായ്മ ഇല്ലാത്ത ആരും തന്നെയില്ല എല്ലാവരെയും കുഞ്ഞുങ്ങളെ ഇപ്പോഴുള്ള ജനറേഷനിൽ വളരുന്ന കുഞ്ഞുങ്ങളെയാണെങ്കിൽ അവർ ജനിക്കുന്നത് ത ജനിക്കുമ്പം തന്നെ അടുത്തുള്ള ഏത് നല്ല സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അഡ്മിഷൻ എടുക്കാം എന്നു തന്നെയാണ് പേരെന്റ്സ് ചിന്തിക്കുന്നത് ഇപ്പം ഒരുപാടിടത്ത് കാണുന്നുണ്ട് വലിയ വലിയ സ്കൂളുകളൊക്കെ അഡ്മിഷൻ രണ്ടും മൂന്ന് മാസം മുൻപേ ഇൻറ്റർവ്യൂ നടത്തിത്തന്നെ കുട്ടികളെ അഡ്മിഷൻ എടുക്കാറുള്ളു നമ്മുടെയൊക്കെ സമയത്ത് ചിലപ്പോൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേന്നായിരിക്കും ചെന്ന് അഡ്മിഷനെടുക്കുക അപ്പോൾ നമുക്ക് കിട്ടാറുണ്ട് പക്ഷെ ഇപ്പോഴത്തെ സിസ്റ്റം ഒക്കെ മാറി അതായത് വലിയ വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ അഡ്മിഷൻ വേണമൊന്നെണ്ടെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് മാസങ്ങൾക്കു മുൻപു തന്നെ പോയി ഇൻറ്റർവ്യൂ കുട്ടിയും പേരെന്റ്സും എല്ലാം ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മാത്രമേ അഡ്മിഷനൊക്കെ കിട്ടുകയുള്ളു പണ്ടത്തെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ രീതിയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്